ഹലോ ആ പറഞ്ഞോളൂ അതെ അതെ ആ എന്താണ് എത്ര ദിവസമായി കംപ്ലയിൻ്റ് ചെയ്തിട്ട് എത്ര ദിവസമായി കംപ്ലയിൻ്റ് ചെയ്തിട്ട്

ഇപ്പോഴും ഇപ്പം ഇപ്പോഴും മോശപ്പെട്ട വെള്ളം ആണല്ലേ വരുന്നത് പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല കാരണം ഞങ്ങൾ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച എല്ലാം ആ ക്ലിയർ ആക്കിയതാണ് എല്ലാം എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താണ് അതിൻ്റെ കാരണം ആ പറഞ്ഞോളൂ ഓ അപ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളല്ലേ

അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പൈപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നം ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എന്തായാലും ഒരു ഒരാഴ്ച്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണമേ ഇപ്പം ഫണ്ട് ഒക്കെ കുറവാണ് ഇനി ഫണ്ട് വരുമ്പം നിങ്ങളുടെ അങ്ങോട്ടുള്ള പൈപ്പ് എല്ലാം ഒന്നുകൂടെ തോണ്ടി കുളം കുളം ഒക്കെ കുളം എല്ല് കുളം എല്ലാം കഴിഞ്ഞ ആഴ്ച്ച ക്ലീൻ ചെയ്തതാണ് ആ പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പൈപ്പിൻ്റെ എന്തെങ്കിലും കുഴപ്പം ആയിരിക്കാം എന്തായാലും പേ എന്തായാലും പേടിക്കണ്ട വരാം ആ അപ്പോൾ അങ്ങോട്ടുള്ള പൈപ്പിൻ്റെ പ്രശ്നം ആയിരിക്കും കേട്ടോ ആ അപ്പോൾ ഫണ്ട് ഞാൻ ആ അപ്പം ഞാൻ ഞാന് ഒരു കാര്യം ചെയ്യാം മോളിലേക്ക് അറിയിച്ചേ ആ ഫണ്ട് റെഡി ആക്കാനും ഉടനെ തന്നെ നിങ്ങൾ പൈപ്പ് ഇ ഫണ്ട് ഇല്ല കേട്ടോ ഫണ്ട് ഇനി വരും ഫണ്ട് വരും വരാതിരിക്കില്ലല്ലോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ അടി അടി ആ ഓക്കെ ഓക്കെ നിങ്ങളുടെ ഓക്കെ നിങ്ങളുടെ കാര്യം അടിയന്തരമായിട്ട് തന്നെ ക്ലിയർ ചെയ്തു തരാനുള്ള ഏർപ്പാടുണ്ടാക്കാം ഇല്ലില്ല വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഏയ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല വേണ്ട വേണ്ട അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യം ഒന്നുമില്ല എന്തായാലും ഒരാഴ്ചയ്ക്ക് അകത്ത് എല്ലാം ക്ലിയർ ആക്കി റെഡി ആക്കി തരാം ഓക്കെ ആ വേണ്ട വേണ്ട വേണ്ട വേണ്ട വേറെ ആരെയും വിളിക്കേണ്ട അത് ഓഫീസിൽ നിന്ന് മാത്യു മാത്യു ആ ഓക്കെ ഇല്ല ഇല്ല നാ നാളെ ഇല്ല ഒരാഴ്ചയ്ക്കകത്ത് റെഡി ആക്കി തരാം ഓക്കെ ആ ശരി ആ എത്രയും എത്രയും പെട്ടെന്ന് റെഡി ആക്കി തരാം ഓക്കെ ശരി ശ് ശരി ഓക്കെ